ഡ്രൈവിങ് സ്കൂളിലെ സാറാണോ ഹലോ ഹലോ ആരാ ഹലോ ആരാണ് അതെ അതെ അതെ ആരാ വിളിക്കുന്നേ അവിടെ നില്ക്കൂ അവിടെ നില്ക്കൂ അവിടെ നില്ക്കൂ ആര് ആരാണ് വിളിക്കുന്നത് ഓക്കെ ഓക്കെ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ കാര്യമെന്താണെന്നു പറഞ്ഞോളൂ അതെ ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ഏത് വണ്ടിയുടെ ആണ് ഫോർ വീലറിൻ്റെ ആണോ വേണ്ടത് അതോ ടു വീലറിൻ്റെ ആണോ ഓക്കെ നിങ്ങള്ക്ക് ഡ്രൈവിംഗ് ഇപ്പോള് പഠിക്കാൻ തടങ്ങണമല്ലോ അല്ലേ ആദ്യം നിങ്ങൾ ലേണേഴ്സ് എടുത്ത് ലേണേഴ്സ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് ലേണേഴ്സ് നിങ്ങൾ നടത്തി അതു നിങ്ങള് പാസ്സായിക്കഴിഞ്ഞാല്പ്പിന്നെ നിങ്ങള്ക്ക് പെര്മനെന്റിനുവേണ്ടി അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങള് ആദ്യമായിട്ട് നിങ്ങളുടെ ഏജ് പ്രൂഫ് എത്ര വയസ്സായെന്നുള്ളതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം അത് നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെ ബുക്കിലെ പേജിൻ്റെ അല്ലെങ്കില് സ്കൂളില്നിന്ന് പാസൗട്ടായതിൻ്റെ എവിടെ എന്തെങ്കിലും ഏജുള്ളിടുത്ത് ആ പേജിൻ്റെ ഒരു കോപ്പി വേണം അതാണ് ഏജ് പ്രൂഫായിട്ട് വേണ്ടത് പിന്നെ നിങ്ങള് മെഡിക്കലി ഫിറ്റാണെന്നുള്ളതിന് ഒരു ഡോക്ടറുടെ കയ്യില്നിന്ന് അതായത് നിങ്ങള് പോവേണ്ടത് മെയിനായിട്ട് പോവേണ്ടത് ഒരു ഐ ഐ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തു പോകണം അവരുടെ അടുത്തുനിന്ന് നിങ്ങള് ഒരു സർട്ടിഫിക്കറ്റ് കുറവൊന്നും ഇല്ല എന്നുള്ളതു കാണിക്കണം അത് അതാണ് മെയിനായിട്ട് ഈ രണ്ടു കാര്യങ്ങള് മതി നിങ്ങള് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങള് ഇവിടെ ഞങ്ങളെ വണ്ടി ഞങ്ങള്ക്ക് ഞങ്ങള് സമയം അലോട്ടെയ്യാം അതനുസരിച്ച് ആണ് ഫീസിൻ്റെ കാര്യം പറയുന്നത് ചിലപ്പോള് ഓഡ് ടൈമിലൊക്കെ നിങ്ങള നിങ്ങള്ള് വരാൻ തയാറാണെങ്കിൽ ഞങ്ങൾ ഫീസ് കുറച്ചുതരാം അല്ലെങ്കിൽ നിങ്ങള് ഈ കോഴ്സ് ഈ ലേണേഴ്സ് ലൈസൻസ് എടുത്ത് എടുക്കുന്നതിനു നിങ്ങള്ക്കു മൊത്തം എടുത്ത് തരും ആ എടുക്കുന്നതിനു നിങ്ങള് ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നിരിക്കണം ഫീസായിട്ട് ഒരു നിങ്ങള്ക്കു വരാൻ പറ്റുന്ന സമം പറയാം ഞങ്ങള്ക്കിപ്പോള് ഏത് സമയത്തിലും ഒരു സ്ലോട്ട് ഉണ്ടാക്കി നിങ്ങള്ക്കു തരാം പക്ഷെ നിങ്ങള്ക്കു വരാൻ പറ്റുന്ന സമയം പറയുകയാണെങ്കിൽ പറ്റും പക്ഷെ നിങ്ങളോടു ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കു വരാൻ പറ്റുകയാണെങ്കിൽ അൽപ്പം കൂടെ നേരത്തെ വരാൻ പറ്റുമോ എന്തുകൊണ്ടാണെന്നാൽ നമുക്ക് പൊതുവെ ആദ്യമേ ലേണേഴ്സൊക്കെ എടുക്കുമ്പോഴത്തേക്കെ റോഡില് വലിയ ട്രാഫിക്കൊന്നും ഇല്ലാത്തിടത്തുകൂടിയാണേ നമുക്ക് ഓടിക്കുക വണ്ടി അപ്പഴേ നിങ്ങള് താങ്കള്ക്ക് ഒരു കാര്യം ചെയ്യാമോ നാളെ നാളെ നമുക്ക് ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്കെ നാളെ ഒന്ന് ഓഫീസിലോട്ട് വരാമോ അ അറിയാവോ ഈ ഓഫീസെവിടെയാണെന്ന് അറിയാമോ ആ ഓക്കെ ഓഫീസ് ഞങ്ങള് അവിടെ ഞാനില്ലെങ്കില്ത്തന്നെ അവിടുന്ന് ഈ കാര്യം പറഞ്ഞാല് മതി അവിടെ സ്റ്റാഫ് കാണും ഒരാളിരിപ്പുണ്ട് അവര് നിങ്ങള്ക്ക് ഒരു ഫോം തരും ആ ഫോം ഒന്ന് പൂരിപ്പിച്ചുകൊടുക്കണം അതിനകത്തു കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടേ അത് പുരിപ്പിച്ച് ഒപ്പിട്ട് കൊടുത്തുകഴിഞ്ഞിട്ട് ആദ്യത്തെ ഗഡുവായിട്ടുള്ള അഞ്ഞൂറ് രൂപ നിങ്ങളാദ്യമേ അവിടെ കൊടുക്കണം അതു കഴിയുമ്പോഴത്തേക്കെ എന്ന് എന്നുതൊട്ടാണ് ക്ലാസ്സിനു വരേണ്ടത് ഏതു സമയം തൊട്ട് ഏതു സമയം വരെയുള്ളതാണെന്നൊക്കെ അതു ഞങ്ങള് അന്നേരം പറയാം ഒരു മൂന്നു മാസമൊന്നു പിടിച്ചോ എന്നുവച്ചാല് ധൃതി വച്ചാണെങ്കില് ഞാൻ ഒരു മാസം കൊണ്ടും സംഗതി സാധിച്ചുതരാം പക്ഷെ അതു ചിലപ്പോള് അൽപ്പം കൂടി നിങ്ങള്ക്കു സാമ്പത്തികമായിട്ട് ചെലവാക്കേണ്ടിവരും ഓക്കെ ഏതായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ പറയാം ഇപ്പോള് എനിക്ക് വേറൊരാളുകൂടി ഒരു ഒരു കസ്റ്റമർ ഒരാള് ആ പറയൂ പറയൂ പറഞ്ഞോ പറഞ്ഞോ ഫ്രന്ഡ്സാണോ മൂന്നര ഒത്തിരി ഒത്തിരി നാലൊക്കെയായി